ഞാൻ ജീവിതത്തിൽ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഇഷ്ടപ്പെടുന്ന അഞ്ചു ദിവസങ്ങളാണ് ഒന്ന് ആദ്യത്തേത് ഞാൻ ജനിച്ച ദിവസമായ രണ്ടായിരത്തി നാല് ഡിസംബർ പതിമൂന്നു എന്നതാണ് രണ്ടാമത് വരുന്നത് ഞാൻ ആദ്യമായി ലയണൽ മെസ്സിയെ കാണുന്നത് രണ്ടായിരത്തി ഒൻപത് മാർച്ച് പതിമൂന്നിനാണ് ഞാൻ മെസ്സിയെ കാണുന്നത് ഇത് എനിക്ക് ഈ ജീവിതത്തിൽ വളരെ സന്തോഷം തന്ന ഒരു ദിവസമായിരുന്നു പിന്നെയുള്ളത് എന്നുവെച്ചാൽ രണ്ടായിരത്തി പതിന്നാല് ഞാൻ കൂട്ടുകാരുമായി ആദ്യം ഒരു ലോങ്ങ് ട്രിപ്പ് പോയതാണ് അതും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ തന്ന ദിവസമായിരുന്നു മറക്കാൻ പറ്റുന്നില്ല പിന്നേ മൂന്നാമ നാലാമത്തത് എന്നുവെച്ചാൽ ഞാൻ ആദ്യമായി കോളേജിൽ പോയ ദിവസം കോളേജിൽ പോയ ദിവസമെന്നാൽ എനിക്ക് വളരെയധികം എക്സ്പീരിയൻസ് തന്ന ഒന്നു തന്നെയായിരുന്നു പിന്നെയുള്ളത് എന്നുവെച്ചാൽ ഞാൻ കോളേജിൽ സെക്കൻഡ് ഇയർ ആയ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ രണ്ട് അന്നാണ് എനിക്ക് ആദ്യമായി കൈയിൽ വണ്ടി കിട്ടുന്നത് വണ്ടി പഠിച്ചു വണ്ടി ഓടിച്ചു കോളേജിൽ പോകുന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു അത് സംഭവിച്ച ദിവസം എനിക്ക് മറക്കാൻ പറ്റാത്ത സംഭവമായിരുന്നു ഈ അഞ്ചു ദിവസങ്ങളായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപെട്ട അഞ്ചു ദിവസങ്ങൾ